പിന്നെ അത് എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതിത്തകർച്ച അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് ഗ്രാമ പ്രദേശങ്ങളിൽ സർക്കാർ ഭരണത്തിൽ ഇല്ലാത്ത ഘടകങ്ങൾ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ പൊതുസേവനങ്ങൾ പരിസ്ഥിതിത്തകർച്ച ആരോഗ്യ അസമത്വങ്ങൾ കുറ്റകൃത്യങ്ങൾ സാമൂഹിക അശാന്തി രാഷ്ട്രീയ പാർശ്വവൽക്കരണം അങ്ങനെയുള്ളതൊക്കെതന്നെ അപ്പോൾ ഈ പൊതുസേവനങ്ങളെന്ന് പറയുന്നുണ്ടെങ്കിൽ അതായത് മോശമായ പൊതുസേവനം അതായത് നമുക്കൊരു എക്സാംപിൾ പറയുകയാണെങ്കിൽ ഗവർമെൻ്റ് ഹോസ്പിറ്റൽ അതായത് നമ്മൾക്ക് അതായത് നമ്മൾ സാധാരണക്കാരാണെന്നുള്ള ഇതിൽ നമ്മളെ അതായത് അവർ വലിയ കാര്യമായിട്ട് നോക്കില്ല അതായത് അങ്ങനെ ശ്രദ്ധിക്കില്ല അവർക്കെന്നു വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിയില്ലെങ്കിലും നോക്കിയാലും ഇല്ലെങ്കിലും അവർക്ക് അവരുടെ സാലറി കിട്ടും പക്ഷേ പരിസ്ഥിതിത്തകർച്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മരം വെട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിസ്ഥിതിത്തകർച്ച തന്നെയാണ് പിന്നെ എന്താണെന്ന് വച്ചാൽ ആരോഗ്യ അസമത്വങ്ങൾ അതായത് പ്രോപ്പർ ആയിട്ട് നമുക്ക് പിന്നെ ഒരു അതായത് ആരോഗ്യ പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സ കിട്ടുന്നില്ല അങ്ങനെ പിന്നെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് ഉണ്ട് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ സർക്കാറിൻ്റെ ഭരണത്തിൽ ഇല്ലാത്ത ഘടകങ്ങൾ